ഇപ്പം എൻ്റെ ജന്മനാടിനെക്കുറിച്ച് എനിക്കേറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി എനിക്കിപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ നമുക്ക്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജില്ലയില് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ നല്ലൊരു മെഡിക്കൽ കോളേജുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നല്ലൊരു മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ നമുക്ക് അതായത് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്കവിടെ തന്നെ കാണിക്കാം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് മെഡിക്കൽ കോളേജിത്തന്നെ ഉണ്ട് അപ്പോൾ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കവിടെ കാണിക്കാം എല്ലാ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റും നല്ല നല്ല ഡോക്ടർമാര് പ്രൊഫസർമാര് ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ടുതന്നെ പുറമേയുള്ള അതായത് പോറത്തെ ജില്ലയിലെ ആൾക്കാരും കൂടെ നമ്മുടെ ജില്ലേല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു സൗകര്യം തന്നെയാണ് പിന്നെന്നു വച്ചിട്ടുടെങ്കിൽ ഹോട്ടലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ഇപ്പോൾ നമുക്ക് ജോലിക്കാണെങ്കിലും ഒന്നിനും നമുക്കൊരു പഞ്ഞമില്ലാത്തൊരു ജില്ലതന്നെയാണ് നമ്മുടെ ജില്ല പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റോം സൗകര്യമുള്ളത്ന്നു വേണെങ്കിത്തന്നെ പറയാൻ സാധിക്കും അത്രെയും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാ സൗകര്യം എല്ലാ എല്ലാത്തിനും നമുക്ക് അതായത് എന്ത് സാധനം മേടിക്കാനാണെങ്കിലും എല്ലാത്തിനും സൗകര്യങ്ങളുള്ളൊരു വലിയൊരു ജില്ല തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല